ആ ഹലോ ആ ഡെയ്സിക്കുട്ടിയല്ലേ

ആ കെ എസ് ആർ ടി സീ യിൽനിന്ന് ആ ആ ആ ആ ഡെയ്സിക്കുട്ടിയല്ലേ ആ ആ മാഡം ആ മാഡം ട്രിവാൻഡ്രത്തേക്ക് ഒരു സീറ്റ് ബുക്ക് ചെയ്തിട്ടില്ലേ ഇത് അയ്യോ അത് ഇപ്പോൾ ട്വൽവ് ആണല്ലോ ട്വൽവാ ആ ഇരവണി ആ വാ ഇപ്പം ഇവിടെ നെറ്റ് അത് ഇപ്പം ഇവിടെ താങ്കളുടെ സീറ്റ് നമ്പർ ട്വൽവ് ആണ് വന്നിരിക്കുന്നത് ഇലവൻ വേറെയാൾ ആള് ബുക്ക് ആയി പോയി

അത് അതിൽ ഇനി ചേഞ്ച് ചെയ്യാനൊന്നും സാധ്യമല്ല അത് അത് ബുക്കിംങ്ങ് ആയി പോയി ഇനി നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല

ആ അതിനിയൊന്ന് അന്വേഷിക്കട്ടെ ആരെങ്കിലും ക്യാൻസല് ചെയ്യുന്നെങ്കിൽ

ആ ഓൾറെഡി ഇലവൻ ബുക്കിംങ്ങ് ആണ് ആ ആ മാഡത്തിന് ട്വൽവ് ആണ് ആ അതിനി ഒന്നും ചെയ്യാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് ആ ഞാൻ ആ ആ ഇവിടൊന്ന് അന്വേഷിക്കട്ടെ ആ ഇന്ന് നാളത്തേക്ക് നാളെ നാളെ വരുമോ നാളെ ആ അന്വേഷിക്കാം ആളില്ലെങ്കിൽ സീറ്റ് തരാം ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ പറ്റൂ എക്സ്ട്രാ ആ ആ നോക്കാം അല്ലെങ്കിൽ എക്സ്ട്രാ പൈസ തരേണ്ടി വരും ഇന്ന് തന്നെ ആ എക്സ്ട്രാ ഒരു തൗസൻഡ് റുപ്പീസും കൂടെ തരുകയാണെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് റെഡിയാക്കാം അതെ ആ മാഡം അത് എൻക്വയറീൽ എന്തെങ്കിലും വന്ന് അന്വേഷിക്ക് ആ ആ ഓക്കെ നോക്കാം നമുക്ക് ശരിയാക്കാം ആ ഓക്കെ ആ ഓക്കെ

ആ ആ

ആ ആ ഇന്ന് തന്നെ നമുക്ക് റെഡിയാക്കാം മ്മ് മ്മ് ആ ആ ആ ആ ആ ശരി ശരി ഓക്കെ ഓക്കെ ക്കെ ആ വെൽക്കം വെൽക്കം ആ വെൽക്കം ആ ആ മ്മ്